ഞങ്ങളുടെ നാട്ടിൽ ഒരദ്ധ്യാപകനുണ്ട് ആ അദ്ധ്യാപകൻ ചെറുപ്പം മുതലേ കര കൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്ന ഒരാളായിരുന്നു അന്ന് അയാൾ അറിയപ്പെട്ടിരുന്നില്ല അന്ന് അയാൾക്ക് ചെറിയ എന്തോ ഒരു പേപ്പറ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ചവിരി അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഓരോ സാധനങ്ങളുണ്ടാക്കി വച്ചിരുന്നു ഇങ്ങനെ ആയാൾ വലുതായി വലുതായി വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തിയപ്പം അവർ ഉണ്ടാക്കുന്ന ഓരോ സാധങ്ങങ്ങൾ അധ്യാപകർക്ക് കൊണ്ട് പോയി കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് അയാൾ ഇങ്ങനെ ഒരു വലിയ സാധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ് തുടങ്ങിയത് ഇപ്പം അയാളൊരു വലിയൊരു അദ്ധ്യാപകനാണ് ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന ഒരു അദ്ധ്യാപകനാണ് അപ്പം അവരെ ഫാമിലിയും ഇതുപോലെ ഇത് കണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം അവരുടെ വീട്ടിൽ തന്നെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട് അതു കണ്ടു ഇന്നത്തെ ജനറേഷനിൽ യൂട്യൂബർമാറുള്ളത് കൊണ്ട് അവർ ഇതൊക്കെ വലിയ വലിയ വീഡിയോസാക്കി അവർ എല്ലാ ഇടത്തും എത്തിച്ചിട്ട് ഇതിന് ഒരു സിനിമയിൽ എടുത്തിട്ടുണ്ട് അവരത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു ഈ അദ്ധ്യാപകനും തന്നെ നല്ല വലിയ ഒരു പ്രൗഡായി ഇപ്പം അദ്ധ്യാപകൻ്റെ മകനും നല്ലൊരു കരകൗശല വസ്തു നിർമ്മാണത്തിന് ഉണ്ട് അവരെ വൈഫാണെങ്കിലും എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ട സാധനങ്ങൾ അവരെ നാട്ടുകാരായാലും അവരെ സുഹൃത്തുക്കൾ റിലേറ്റീവ്സെല്ലാം ഇപ്പം അവർക്ക് കൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗമില്ലാതെ കളയുന്ന പേപ്പർ ബോട്ടിൽ ചകിരി മരത്തിൻ്റെ തോല് അങ്ങനെ പല പല സാധനങ്ങൾ വച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പലരും കൊണ്ട് വന്ന് കൊടുത്ത് അങ്ങനെ അതു കൊണ്ട് അവർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതറിഞ്ഞ് ഒരു സിനിമയിലേക്ക് അവരെ സിനിമയിൽ ഇതു പോലെ ഒരു ഇത് വാങ്ങുന്നു എന്ന് പറഞ്ഞ് അവർ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അവരെ സിനിമയിലേക്ക് അവരെ എടുത്തിട്ടുണ്ട് അങ്ങനോരു ആവരെ വീടും ആ ഒരു സയൻസ് ക്ലബ്ബും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ നാട്ടുകാരായത് കൊണ്ട് ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അതിന് ആ അദ്ധ്യാപകനാണ് കാരണം ഇന്നും എല്ലാവരും ആ അദ്ധ്യാപകനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്